ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് വിദ്യ അഭ്യസിക്കാൻ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോയി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുകള് തന്നെയും ഇല്ല കാരണം അതിനുവേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ അവർക്കിന്നുണ്ട് നടക്കേണ്ടതില്ല ബസുകളുണ്ട് വീട്ടിൽ സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ട് അമ്മമാർക്കും അച്ഛൻ അച്ഛൻമാർക്കൊക്കെ വീട്ടില് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുമൊക്കെ ഒരുപാട് വണ്ടികളും കാറായിട്ടും അല്ലെങ്കിൽ ബൈക്കായിട്ടും ഒക്കെ വീട്ടിൽ വാഹനങ്ങൾ ഉള്ള കുട്ടികളും ഉണ്ട് അവർക്ക് ഇന്ന് നല്ല രീതിക്ക് തന്നെ സ്കൂളുകളിൽ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു നിലയിലാണ് എന്നാൽ പണ്ട് ജീവിച്ചിരുന്നവർക്ക് ഒട്ടും അവര് അവര് നേരിട്ടിരുന്നൊരു വല്യൊരു വെല്ലുവിളിയാണ് അവർക്ക് ദൂരം നടന്നു നടന്ന് കിലോ മീറ്ററുകൾ മൈലുകൾക്കപ്പുറത്ത് അവര് പഠിക്കാൻ വേണ്ടി അവര് എത്തിപ്പെടണമായിരുന്നു ഇന്നത്തെപോലെ അത്ര എളുപ്പമായിരുന്നില്ല അത്